എനിക്ക് കല്യാണത്തിനു പോകാൻ ചങ്ങാനാശേരിയിലെ ഒരു മൂന്നാലുകടകളില് കയറിയിട്ട് ഒരു സാരി കിട്ടുന്നില്ല അതിന് ഞാന് അതുവാങ്ങാന് വേണ്ടി ഞാൻ ആലപ്പുഴയ്ക്ക് പോവുകയാണ് ആലപ്പുഴയ്ക്ക് മൂന്നാല് കടകളില് കയറിയിട്ട് എൻ്റെ കളറിനുള്ള സാരിയൊന്നും അങ്ങനെ കിട്ടുന്നില്ല അത് ഇച്ചിരി വലുപ്പം ഇച്ചിര മജന്ത കളറോ എന്തെങ്കിലും ഉള്ളതായിരിക്കണം നല്ല നിറം ഉള്ളതായിരിക്കണം പക്ഷേങ്കില് ഇച്ചിരെ വിലക്കുറവായിരിക്കണം അതുകൂടാതെ ഇനിയിപ്പോള് ഞാന് കോട്ടയത്ത് പോയ്കൊണ്ടിരിക്കുകയാണ് നല്ലെയൊരു സാരി തിരയാൻ കോട്ടയത്ത് ഏത് കടയില് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല അങ്ങനെ കോട്ടയത്തും കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുവന്നു ചങ്ങനാശേരി ഈ കടയിൽ കയറിയിരിക്കുകയാണ് എസ് എമ്മില് എസ് എം ഇങ്ങനെ ഞാൻ സാരി നോക്കികൊണ്ടേയിരിക്കുകയാണ് എന്നാ വിലയാകുമെന്നോ എന്തവാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ ഞങ്ങളുടെ വീട്ടുകാർക്കെല്ലാർക്കും കൂടി ഇഷ്ടപ്പെടുന്നയൊരു സാരി ആയിരിക്കണം കല്യാണത്തിന് പോകാനാണ് എത്രയും നല്ലെയൊരു സാരി ഞങ്ങള് നോക്കികൊണ്ടേയിരിക്കുന്നു